എൻ്റെ ഗ്രാമത്തിൽ ഞാൻ വീട് എടുക്കുകാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയുള്ള സമയങ്ങളിൽ എടുക്കും മഴക്കാലത്തൊന്നും എടുക്കുകയില്ല മഴക്കാലത്തിൽ നമ്മളിപ്പം ഒരു വീട് പണി തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്ക് വരാൻ ആൾക്കാർക്ക് കഴിയൂല ഒരു ദിവസം വന്ന് രണ്ട് ദിവസം വരാൻ കഴിയില്ല മഴക്കാലം പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ മഴക്കാലമൊന്നും ഞാൻ പണിയെടുക്കാനെ നിൽക്കില്ല ഒരു നല്ല കാലാവസ്ഥ ഉള്ള സമയത്താണ് ഞാൻ തുടങ്ങാമെന്ന് വെച്ച് തീരുമാനിച്ചത് അപ്പോൾ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ വീട് എടുക്കു ഒരു രണ്ട് ബെഡ്റൂമ് ഒരു അടുക്കള ഒരു വർക്കേരിയ ഒരു ബാത്രൂമ് അങ്ങനെയുള്ള ഒരു വീട് എടുക്കൂ എനിക്കാണെങ്കിൽ വലിയ മണിമാളിക പോലത്തെ വലിയ വീടോടൊന്നും എനിക്ക് താൽപ്പര്യം ഇല്ല ഒരു ചെറിയ വീടെടുത്ത് അതിൻറ്റകത്ത് നിൽക്കാനാണ് എനിക്ക് ഇഷ്ട്ടം പിന്നെ എനിക്ക് മോദീൻ്റെ ഈ വീടിൻ്റെ ഭവനം എടുക്കാനുള്ള ഇതുണ്ട് പക്ഷേങ്കിൽ നമുക്കത് കിട്ടുമോന്നറിയില്ല ഞാൻ അത് അതിനെപ്പറ്റി അന്വേഷിച്ചിനി അപ്പോൾ നമുക്ക് കിട്ടുമൊന്ന് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കിട്ടുവാണെങ്കിൽ നമ്മൾ ആ ഒരിതിൽ ആയിരിക്കും എടുക്കൽ ഉണ്ടാവുക ചെറിയ വീടാണ് മോദീൻ്റെയിൽ നമുക്ക് എടുക്കാൻപറ്റിയ ഒരു ചെറിയ വീടാണെന്നാണ് ഞാനറിഞ്ഞത് അപ്പം നമുക്ക് ആ ഒരിതിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ എടുക്കാനാണ് കൂടുതൽ താൽപ്പര്യം നമുക്ക് ചെറിയ വീട് മതിയല്ലോ വലിയ മണിമാളിക ഒന്നും എടുക്കാനുള്ള താൽപ്പര്യം നമുക്കില്ലാ താനും നമ്മള കയ്യിലത്രക്ക് പൈസയും ഇല്ല ചെറിയ വീട് മതി വലിയ വീടോടൊന്നും താൽപ്പര്യപ്പെട്ടിട്ടും നമുക്കിപ്പം കാര്യമില്ല അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെയുള്ള ഇതേ എടുക്കൂ നമുക്കിപ്പോൾ ഒരു വീട് മതി രണ്ട് ബെഡ്റൂമ് ഒരു അടുക്കള ഒരു കക്കൂസ് അങ്ങനെ ഉള്ളൊരു വീടിനോടാണ് താൽപ്പര്യം